ഞാനിപ്പോൾ ക്ലൈമ്പിങ്ങിന് പോയത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അത് തന്നെയാണ് നമ്മള് കൽപ്പറ്റ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പോയതതാണ് ഇനി പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലവും അതാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പൊതുവെ എനിക്ക് അങ്ങനെ എവിടേയും പോകുന്ന ഇഷ്ടമല്ല അങ്ങനെ ദൂരെ സ്ഥലങ്ങളില് നേരെ ഇങ്ങനെ കയറി ബുദ്ധിമുട്ടി എനിക്ക് വണ്ടിയില് പോയി എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് സാധനം എന്തെങ്കിലുമൊക്കെ കാണുക പിന്നെ എന്തെങ്കിലും കലാ പരിപാടി കാണുക അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എവിടേയും പോകുന്നത് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ പോയത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് കുറച്ച് കസിൻസ് വന്നിട്ട് ഞങ്ങളെ വിളിച്ചു നമ്മള് വയനാട് ട്രിപ്പ് പോയി ആദ്യം പോയത് കൽപ്പറ്റയാണ് കൽപ്പറ്റ റോപ്പ് ക്ലൈമ്പിന് നമ്മള് കയറി അതായത് ഒരുപാട് കുറേ കയറണം എന്നാലേ നമുക്ക് മേലെന്നൊരു വ്യൂ ഉണ്ടാവുള്ളു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു ഇതായിരുന്നു പിന്നെ അവരൊക്കെ നിർബന്ധിച്ചിട്ട് പോയതാണ് എനിക്ക് ഒട്ടും താൽപ്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും വന്നതല്ലേ നമുക്ക് പോകാല്ലോന്നുള്ള ഒരിതില് ഞാൻ പോയെന്നെ ഉള്ളു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് എനിക്ക് ഒട്ടും താൽപ്പര്യം ഇല്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് സാധാരണ സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ബീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനാണ് താൽപ്പര്യം എനിക്ക് റോപ്പ് ക്ലൈമ്പിങ്ങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കങ്ങനെ പോകാൻ താൽപ്പര്യമില്ല